ഞങ്ങടവിടെ വെറ്ററിനറി ഡോക്ടർമാരുണ്ട് കൂടുതലായിട്ടും ആ കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വെറ്ററിനറി ഡോക്ടർ ഉള്ളത് അവർ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവരിപ്പം പശുവിന് എന്തെങ്കിലും പ്രോബ്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അവരവിടുന്ന് വണ്ടി വിളിച്ചിട്ടാണ് വരിക അപ്പോൾ വണ്ടി വാടക അടക്കം അവർക്കൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലാത്ത പക്ഷം അവരിപ്പം വേറെന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടീം പിന്നെ അവിടുന്ന് ഇവിടം വരെ വരുന്നതല്ലേ നമ്മുടെ പശുവിനെ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടീം കൊണ്ട് നമ്മളാ എമൗണ്ട് കൊടുക്കാറുണ്ട് പത്തറുനൂറ് രൂപേന്റെ അടുത്ത് വരും അവിടുന്ന് ഇവിടം വരെ വന്ന് നമ്മുടെ പശുവിനെ പരിശോധിക്കുന്നതിന് ഇപ്പം അധവാ എന്തെങ്കിലും ഒരു ഒരു മരുന്നോ കാര്യങ്ങളോ എടുക്കുവാണെങ്കിൽ അതിനും നമ്മൾ പേ ചെയ്യണം ഇപ്പം ഭയങ്കര ഒരു ക്യാഷായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്